ഞാൻ ചിത്രങ്ങള് വരയ്ക്കാൻ തുടങ്ങുന്നത് ചെറിയ ബുക്കുകളിലൂടെയാണ് അതിലൂടെ വരക്കുമ്പോഴത്തേക്കും എനിക്ക് കുറേ ഇതൊക്കെ അംഗീകാരങ്ങള് കിട്ടിയിട്ടുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ നല്ലതാടീ കൊള്ളാമെടീ നിനക്കിത് മറ്റുള്ളവരെ ബാക്കിയുള്ളവരെ വേണേ അറിയിക്കാൻ മേലെ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോള് ഞാൻ പിന്നെ സ്വന്തമായിട്ടൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങി ഇതിനുവേണ്ടി പെയിൻറ്റിങ്ങിൻ്റെ ഇത് കാണിക്കാന് വേണ്ടിയിട്ട് ടാലെൻറ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തുടങ്ങി അത്യാവശ്യം ഫോളോവേർസൊക്കെ കിട്ടി പക്ഷേ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാല് ഭയങ്കര നെഗറ്റീവ് കമെൻസൊക്കെ ആയിരുന്നു ഇതൊക്കെ ആർക്കും ചെയ്യാമ്പറ്റുമല്ലോ ഞാൻ ഇതിൻ്റെ തുടക്കം മുതല് ഞാൻ പഠിച്ച സംഭവങ്ങൾ മുതൽ ചെറിയ ചെറിയ ഇതില് വച്ച് ഇതുവരെയും പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ മുതല് അപ്ലോഡ് ചെയ്യുമായിരുന്നു വീഡിയോസ് ആയിട്ട് അപ്പോള് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കുറേ വിമർശനങ്ങള് ഞാന് ആദ്യം നേരിടുമായിരുന്നു ഇത് നിനക്കിതെ പണിയുള്ളോ വച്ചിട്ട് പോടീ വേറെ എത്ര നല്ല ഇതായിട്ടാ ബാക്കിയുള്ളവരൊക്കെ വരയ്ക്കുന്നത് അവര് ഇത്രയും നന്നായിട്ട് വരയ്ക്കും നിന്നെക്കാട്ടിലും മെച്ചം അവരാണല്ലോ അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ ഒരുപാട് കമെൻസ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല എന്നെ ഇപ്പോള് അങ്ങനെ നെഗറ്റീവൊക്കെ വരുമ്പോഴും എനിക്ക് പോസിറ്റീവ് ആയിട്ട് കുറച്ചു കമെൻസ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോള് എനിക്ക് നല്ല ഇപ്പോള് നല്ല രീതിയിലുള്ള ഫോളോവേഴ്സുണ്ട് നല്ല ഇൻസ്റ്റാഗ്രാമില് എനിക്ക് നല്ല കമെൻസ് വരുന്നുണ്ട് അന്ന് കൊള്ളത്തില്ലാന്ന് പറഞ്ഞവര് ചേച്ചീ ചേച്ചിയെകൊണ്ട് പറ്റും ഇതിപ്പോള് വരയ്ക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് അവരുടെ നല്ലതും ചീത്തയും കൂടെ അവർ എനിക്ക് പറഞ്ഞ് തരുമ്പോള് എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്